ഒരുപാട് മതനേതാക്കളും വ്യക്തികളുണ്ട് ഞങ്ങളുടെ സംസ്ഥാനത്ത് ആദരിക്കപ്പെടുന്നവരായിട്ട് എങ്കിലും അവരിലെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി ഏതാണെന്ന് വച്ചാൽ സുനിൽ പി ഇളയിടം സാറാണ് കാരണമെന്താണെന്ന് വച്ചാൽ സാറിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട് സാറ് പറയും ഒരു ജനാധിപത്യമെന്താണെന്ന് വച്ചാൽ ഒരു ഓട്ടമത്സരത്തിൽ ഒരുപാട് പേർ ഓടിയിരുന്നു എന്നതിനേക്കാളുപരി കൂടെ കുറേപ്പേർ ഓടി എന്നും ചിന്തിക്കുന്നതാണ് ജനാതിപത്യം എന്ന് സുനിൽ പി ഇളയിടം സാറ് എപ്പോഴും പറയും സാറിൻ്റെ ആ പ്രസംഗം കേട്ടാൽ ഒരാൾക്കുപോലും അത് മറക്കാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത സുനിൽ പി ഇളയിടം സാറ് പറയും ഒരു രാജ്യത്തിൽ ഓരോ വ്യക്തിക്കും ആ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ എന്നെക്കൊണ്ടെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവർ ഉറപ്പായിട്ടും ഒന്നുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഒരു ചെറിയ മാറ്റം മതി രാജ്യത്ത് അത് അതെല്ലാവരും ചെയ്യുകയാണെങ്കിൽ രാജ്യത്തൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് സുനിൽ പി ഇളയിടം സാറ് എപ്പോഴും പറയുമായിരുന്നു അതുപോലെതന്നെ എനിക്ക് പിന്നെ എൻ്റെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്കെത്തിയ ഒരാൾ ജോസഫ് അന്നംക്കുട്ടി ജോസ് അദ്ദേഹമാണെങ്കിലും തൻ്റെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ കൊണ്ടുവന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾ കുടുംബത്തിലല്ല വന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്താരീതിക്കാണ് മാറ്റങ്ങൾ സംഭവിച്ചത് എങ്ങനെ സ്വന്തം കൂടെയുള്ള മനുഷ്യരെ ചേർത്ത് നിർത്താം അവരെ സ്നേഹിക്കാം അങ്ങനെ എങ്ങനെ ജീവിതം കൂടുതൽ മനോഹരമാക്കാം എന്ന് അന്നംക്കുട്ടി ജോസ് പഠിപ്പിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രണ്ട് ബുക്കുകളുണ്ട് ഒന്ന് സ്നേഹം കാമം ഭ്രാന്ത് ഒന്ന് വേറെയൊന്ന് വറീഡ് തോട്ട്സ് അത് ഇംഗ്ലീഷിലാണ് ഉള്ളത് അദ്ദേഹമൊരു റേഡിയോ ആർ ജെയാണ് എങ്കിലും എല്ലാവർക്കും സുപരിചിതനാണ് അതോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു വ്യക്തി എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ലിറ്റി എന്നാണ് പേര് സിസ്റ്റർ വളരെ പ്രശസ്തയാണ് കാരണം മദർതെരേസയിനെപോലെ തെരുവുകളിലും വഴികളിലും ഒക്കെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആരോരുമില്ലാത്തവരെ സ്വന്തം മഠത്തിൽ കൊണ്ടുപോയി അവരെ ശ്രുശ്രൂഷിക്കുകയും അവർക്കുവേണ്ടി ജീവിതം തന്നെ മാറ്റിവയ്ക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വമാണ് സിസ്റ്റർ ലിറ്റി ഈ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നതാണ് സത്യം നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളും ഓരോരോ പുസ്തകങ്ങളാണ് ഈ വലിയ വ്യക്തിത്വങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശരിക്കും ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു മനുഷ്യ പുസ്തകശാല എന്നുതന്നെ പറയാം ഇത്തരം വ്യക്തിത്വങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നതും സത്യമാണ് ഈ ലിറ്റി സിസ്റ്ററിനെയൊക്കെ കാണുമ്പം തന്നെ മദർതെരേസയിനെയാണ് ഓർമ്മ വരുന്നത് കാരണം എന്തൊക്കെ ത്യാഗങ്ങളെടുത്താണ് അവർ ഓരോ മനുഷ്യർക്കും സഹായങ്ങൾ ചെയ്യുന്നത് തെരുവിലുളള ആരോരും ഇല്ലാത്തവരെ സഹായിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് ഇപ്പം സുനിൽ പി ഇളയിടം സാർ ആണെങ്കിൽതന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പോലും ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കാനും അവരുടെ ജീവിതങ്ങൾ മാറ്റി മറിക്കാനും ഒരുപാട് ശക്തിയുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ ഒക്കെ നമ്മളെ പ്രജോദിപ്പിക്കുകയാണ് നമുക്കും സാധിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും ഓരോരുത്തരും തങ്ങളാലാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സമൂഹത്തിൽ പതിയെ പതിയെ മാറ്റങ്ങൾ വരും എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുകയാണ് വേറൊരാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ തോമസ് തറയിൽ പിതാവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേത്തറാപുലത്തെയാണ് ഞാൻ പത്തനംതിട്ട ജില്ല ആണെങ്കിൽക്കൂടി എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേത്തറാപുലത്തെ ആയ തോമസ് തറയിൽ പിതാവിനെ ഒരുപാട് ഇഷ്ടമാണ് കാരണം പിതാവ് വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല പിതാവ് പറയും ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം നർമ്മബോധമാണ് സന്തോഷത്തോടെ ഇരിക്കാൻ ചുറ്റുമുള്ളവരെ ചേർത്തുപിടിക്കാനും സ്നേഹിക്കാനും കുറച്ചുകൂടെ ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് പിതാവ് എല്ലാവരേയും പഠിപ്പിക്കുന്നു ഭാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഭാരപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് വലിയ വലിയ മത ഗ്രന്ഥങ്ങൾ പോലും പിതാവ് വ്യാഖ്യാനിക്കുന്നതെന്നതാണ് ഒരു വസ്തുത പിതാവിൻ്റെ പ്രസംഗങ്ങൾ എപ്പോഴും അത് ക്രിസ്ത്യാനികൾക്കെന്നല്ല ഹിന്ദുക്കൾന്നില്ല ഏത് മതം ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്നതുപോലെ സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് പിതാവെപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെ ഉള്ള എല്ലാ മത നേതാക്കളും വ്യക്തികളും ഒക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എനിക്ക് തോന്നിയത് നമ്മളാൽ സാധിക്കുന്നതുപോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളും അവസരങ്ങളും ഉപയോഗിച്ച് ആത്മാർത്ഥതയോടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും